ഹലോ ഇത് ടു വീലർ ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന കമ്പനി അല്ലേ ആ ഞങ്ങളെ കോയമ്പത്തൂര് കോയമ്പത്തൂരിന്ന് ഒരു ട്രിപ്പ് വരുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ബൈക്സ് റെൻറ്റിന് എടുക്കാൻ വേണ്ടി ഞങ്ങള് മൊത്തം എ ഏഴ് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു എട്ട് ബൈക്ക് എട്ട് ബൈക്ക് അല്ല ആറ് ആ ആറോ അഞ്ചോ ബൈക്ക് വേണ്ടി വരും അത് നമ്മള് കറക്റ്റ് പറയാം ശരി ആ എല്ലാവർക്കും ഓരോന്ന് ആണോന്ന് നമ്മൾ ഒന്ന് തീരുമാനിച്ചിട്ടില്ല

അപ്പം അതിന് ലിമിറ്റ് ഒക്കെ ഉണ്ടാകുമോ അതായത് എത്ര കിലോമീറ്റർ ഓടണം അങ്ങനെ എന്തേലും ഒക്കെ

ആ ഓക്കെ അപ്പം ഈ പെട്രോളും ആ ഇതൊക്കെ അതായത് അവര് ഇങ്ങള് തന്നെ പ്രൊവൈഡ് ചെയ്യുമോ ആ ബാക്കി നമ്മളാ ആ ഹെൽമെറ്റോ ആ ആ ഓക്കെ ആ നമുക്ക് കുറച്ച് അഡ്വഞ്ചറസായിട്ടുള്ള ഇപ്പം ഹിമാലയ മതി എന്നാൽ നമ്മള് തീരുമാനിച്ചേക്കുന്നത്

ആ ഓക്കെ ഓക്കെ ഇത് ഇപ്പം നമ്മക്ക് ഒരു സെവൻ എണ്ണം വേണമെന്നാണ് പറഞ്ഞത് തീരുമാനിച്ചേക്കുന്നത് ഇപ്പം ആ ആ

ആ ഇതിന് അപ്പം നമ്മള് എന്തൊക്ക സബ്മിറ്റ് ചെയ്യണം ഡീറ്റെയിൽസ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്സ്